ഇപ്പോൾ ഏറ്റവും കൂടുതലും ഇവിടെ കുടുംബശ്രീക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ കുടുംബശ്രീക്കാർ ഇപ്പോൾ കൂടുതലും വനിത മെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഹോട്ടലുകൾ തുടങ്ങുന്നുണ്ട് അതുപോലെ കുടുംബശ്രീക്കാർ ഏറ്റവും നല്ല പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അല്ല കുടുംബശ്രീ ഉണ്ടെങ്കിൽതന്നെ നമുക്കൊരു പണിയായിട്ട് ഇതാക്കുകയും ചെയ്യാം അതേപോലെ എല്ലാകാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും കുടുംബശ്രീയാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ തൊഴിലായാലും സാമൂഹിക പ്രവർത്തനങ്ങൾ ആയാലും കുടുംബശ്രീക്കാരുകൾ ചെയ്യുന്നുണ്ട് കുടുംബശ്രീ ചെയ്യുന്നുണ്ട് അതുപോലെത്തന്നെ അങ്ങനെ കുറെ തൊഴിലായിട്ട് ഹോട്ടല് തുടങ്ങുന്നുണ്ട് ഇരുപത്ത് ഉറുപ്പ്യേൻ്റെ ചോറെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഹോട്ടൽ അങ്ങനത്തെ കാര്യങ്ങൾ തുടങ്ങുന്നുണ്ട് വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ അങ്ങനത്തേതാണ് ഉള്ളത് കൂടുതലും അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ കുറെ സ്ഥലങ്ങളിൽ വനിത മെസ്സ് എന്നു പറഞ്ഞിട്ട് കുറെ സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കൂടുതലും കുടുംബശ്രീക്കാരെ വൃത്തിയാക്കുന്ന സ്ഥലവും അങ്ങനെ തൊഴിലുറപ്പ് വരെ കുടുംബശ്രീക്കാർ ഇപ്പോൾ സംഘമായിട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹോട്ടൽ ആണ് കൂടുതൽ ഇരുപത് ഉറുപ്പ്യേൻ്റെ ചോറാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കുടുംബശ്രീക്കാർ തന്നെ ഉണ്ടാക്കുന്നത്